മലയാള ഭാഷയുടെ ചരിത്രമെങ്ങനെയായിരുന്നുവെന്നു ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി അധികം അറിയില്ല കാരണം മലയാള ഭാഷ അറിയാമെന്നല്ലാതെ മലയാള ഭാഷയുടെ ചരിത്രത്തിനെപ്പറ്റി എനിക്ക് അധികം വിവരണമില്ല മലയാള ഭാഷയുടെ വികാസപരിണാമത്തെപ്പറ്റി എനിക്കധികം അറിയില്ല നമ്മള് കാരണം എനിക്കിപ്പോള് ഇരുപത്തിയേഴ് വയസ്സായി ഞാന് മലയാളമാണു സംസാരിക്കുന്നതെങ്കിലും എങ്കിൽ പോലും എന്താണ് മലയാള ഭാഷയുടെ ചരിത്രമെന്നു കാലക്രമേണ എങ്ങനെയായിരുന്നു മലയാള ഭാഷയുടെ വികസന വികാസപരിണാമം എന്നതിനെ പറ്റിയും എനിക്ക് ആധികാരികമായിട്ടറിയില്ല എങ്കിലും നമ്മുടെ ഒരു പണ്ടത്തെ ഒരു മലയാള ഭാഷയും ഇപ്പോഴത്തെ ഭാഷ ശൈലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എത്രമാത്രം കറക്ടാണെന്നെനിക്കറിയില്ല പക്ഷേ ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതു നമ്മളുടെ സംസാരഭാഷയിലായാലും എഴുത്തിലൊക്കെ ആയാലും തന്നെ എഴുത്ത് രീതിയിലായാലും തന്നെ ഒരുപാട് വ്യത്യാസങ്ങള് വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ആധികാരികമായിട്ട് നമുക്കതിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് അറിയില്ല നമ്മള് അങ്ങനെ അതിനെപ്പറ്റി എനിക്കറിയില്ല എങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലക്രമേണ കാരണം ഒരുപാട് വർഷങ്ങളായല്ലോ നമ്മള് മലയാളം എന്ന ഭാഷ രൂപീകരിച്ചിട്ടും അതു നിലവിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായപ്പോള് അന്നത്തേതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മാറിയതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നമുക്കതിനെ പറ്റി ആധികാരികായിട്ട് പറയാനറിയില്ലെങ്കിലും ഒരുപാട് ചെയ്ഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോള് പറയാൻ സാധിക്കുകയുള്ളു